ഹലോ ഗുഡ് മോണിംഗ് പിന്നേ ഞാനീ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ വിദേശത്തേക്കു പോകാനായിട്ടൊക്കെ ഞാന് ഒരുങ്ങി ഇരിക്കയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ സാറേ പീറ്റര് സാറെ അതിനെക്കുറിച്ചിട്ടുള്ള ഒന്നും കൂടെയൊരു വിശദീകരണം കിട്ടാനായിട്ട് ഞാനാഗ്രഹിക്കുന്നു കാരണം ഞാനാദ്യമായിട്ടു പോകുകയല്ലേ പാസ്പോര്ട്ടെല്ലാം ശരിയാണേ പിന്നിനി എന്തെങ്കിലൊക്കെ ഡോക്ക്യുമെന്റ്സിനി വേണോ ആവശ്യമായ രേഖകളെന്തെങ്കിലും അതോ യോഗ്യത ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒന്നും കൂടി എനിക്കൊന്ന് അതൊന്ന് ശരിയായിട്ടു മനസ്സിലാക്കി തരാൻ വിധത്തിൽ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ഏതൊക്കെ ഡോക്യുമെന്റ്സാണ് ഞാനവിടെ സമര്പ്പിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സിൽ ഇനി ഏതെങ്കിലും വേണോ അതുക്കൊന്ന് അറിഞ്ഞു കൊണ്ടു തന്നെ ഒന്നു വിളിച്ച് എന്നെ സഹായിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞാൻ ചെറിയൊരു ടെന്ഷനിലാണ് എങ്കിലും എനിക്ക് വിദേശത്തു പോയി പഠിക്കണമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിതില് ഇതിന് മുതിരുന്നത് അപ്പം സാറെനൊന്നു സഹായിക്കണേ ഓക്കെ